ഞാൻ പൂന്തോട്ട പരിപാലനം നടത്തുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് കാരണം എനിക്ക് മുറ്റത്ത് എന്ന് പറഞ്ഞാൽ ഞാനീ എൻ്റെ പൂന്തോട്ടത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ആ ഒരു ഞാൻ എൻ്റെ പൂന്തോട്ടത്തിന് ഓരോ രീതിയിലാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ചെറിയ കുഞ്ഞിച്ചെടികൾ കുറ്റിച്ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് കൊത്തി അതിനൊക്കെ തടം വെച്ചിട്ട് ആണ് ഞാൻ ചെറിയ കുഞ്ഞിച്ചെടികളൊക്കെ വളർത്തുന്നത് അപ്പോൾ അതിന് സാധാരണ ഞാൻ പത്തുമണി മുല്ല ടേബിൾ റോസ്സ് ഇങ്ങനെത്തെ ചെടികളൊക്കെ ഈയൊരു കുഞ്ഞ് സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് നട്ട് അതിന്മേൽ ഉണ്ടാവുന്ന പൂക്കൾ വളരെ വളരെ നല്ല രസത്തിൽ ഉണ്ടാവുമായിരുന്നു കാരണം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ അതുപോലെത്തന്നെ എൻ്റെ വലിയ ചെടികളൊക്കെ ഞാൻ അത്യാവശ്യം ഒരു ഞങ്ങളെ വീടിനകത്തും പുറത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ചെടികളൊക്കെ ഞാൻ മുറ്റത്ത് തന്നെയാണ് വയ്ക്കാറുള്ളത് പക്ഷെ അത് ചുമരിന് ചാരിയിട്ടാണ് ഞാൻ വയ്ക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കൂടുതൽ വെയിൽ കൊള്ളേണ്ട എന്ന് വിചാരിച്ചിട്ട് കാരണം ഇപ്പോൾ അതിന് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽത്തന്നെ അത് ഇല നരയ്ക്കും അതേപോലെ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പം അതിനേക്കാളും നല്ലത് എൻ്റെ പൂന്തോട്ടത്തിൻ്റെ ഒരു സെയ്ഡ് ഭാഗത്ത് അത് സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ എനിക്കത് വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് വളരെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും പിന്നെ അതുപോലെത്തന്നെ എൻ്റെ ഒരു അതായത് പൂന്തോട്ടത്തിൻ്റെ അടുത്തുതന്നെ ഒരു കുഞ്ഞു മീങ്കുളം ഉണ്ട് അപ്പോൾ അതിൽ മീനുകളുണ്ട് അതിന് ചുറ്റുഭാഗവും ഞാൻ ഈ ബുഷ് പോലെയുള്ള ചെടികളാണ് വെച്ചിട്ടുള്ളത് അപ്പം അതും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ എൻ്റെ പൂന്തോട്ടം മുന്നിൽ അതായത് വീടിൻ്റെ മുറ്റത്ത് വെക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയാനുള്ളത് ടെറസിന് മുകളിൽ പൂന്തോട്ടം ഉണ്ടാക്കിയാൽ അത് കാണാനും കാണാനുണ്ട് ശരിക്ക് നമ്മുടെ വീടിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണല്ലോ പൂന്തോട്ടം മുറ്റത്ത് തന്നെ ഉണ്ടാക്കുന്നത് അപ്പം ടെറസിന് മുകളിൽ വെച്ചാൽ അത് പൂന്തോട്ടം ഭംഗിയായിട്ട് അല്ലെങ്കിലത് അത് ഒരു നല്ലൊരു കാഴ്ച വരില്ല അപ്പം അതിനേക്കാളും നല്ലത് അപ്പം ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്ത് ചെടികൾ നടുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഞാൻ ടെറസിന് മുകളിൽ ചെയ്യുന്നത് പച്ചക്കറി തോട്ടമാണ് അപ്പോൾ അത് മറ്റുള്ളവർ കാണുന്നൊന്നുമില്ല അപ്പോൾ അതിൽ കോളിഫ്ലവറ് അതുപോലെത്തന്നെ പയർ കാര്യങ്ങളൊക്കെയാണ് പയർ വെണ്ടയ്ക്ക പിന്നെ അതുപോലെ തന്നെ വഴുതന അങ്ങനെത്തെ കാര്യങ്ങൾ ആണ് ഞാൻ ടെറസിന് മുകളിൽ കൃഷി ചെയ്യുന്നത്